വളര്ത്തു മൃഗങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താന്നുവെച്ചു കഴിഞ്ഞാല് നമുക്കിപ്പം എന്തെങ്കിലും ടെന്ഷനോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കില് ഇപ്പോള് നമ്മളിപ്പോള് ഒരു വളര്ത്തു മൃഗങ്ങളെ വളര്ത്തി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ടെന്ഷന് ഒക്കെ മറന്നു പോവും കാരണം എന്താന്നുവച്ചു കഴിഞ്ഞാല് ഇതിനോട് നമ്മള് സ്പെന്ഡ് ചെയ്യുന്നതിനനുസരിച്ചു നമുക്ക് കുറച്ച് മൈന്ഡ് ഫ്രീ ആകുക അങ്ങനെത്തെ കാര്യങ്ങള് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് കൂടുതലും വളര്ത്തു വളര്ത്തു മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോള് എന്റെ വീട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പശുവുണ്ട് പശു കിടാവുണ്ട്

അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ ഉള്ളപ്പോള് വലിയ പ്രശ്നങ്ങള് കാര്യങ്ങള് ഒന്നും ഇല്ല പിന്നെ ഉള്ളത് എന്ന് വെച്ചാല് കഴിഞ്ഞാല് ഒരു പട്ടിയാണ് ഒരു പൂച്ച പട്ടിയാണ് അതിന്റെ പേര് ജൂഡോ എന്നാണ് ജൂഡോ എന്ന് വിളിച്ചു കഴിഞ്ഞാല് വരുക പിന്നെ അല്ലാണ്ട് ഉള്ള അല്ലമ്പ് കാര്യങ്ങള് ഒന്നും അതിനില്ല പിന്നെ നമുക്ക് കൂട്ടില് കയറാന് പറഞ്ഞാല് കൂട്ടില് കയറും ആദ്യം ഉണ്ടായിരുന്ന പട്ടിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടില് കയറാന് ഭയങ്കര മടിയാണ് കാരണം എന്താന്നുവെച്ചാല് ഇത് അഴിച്ചു വിട്ട് കഴിഞ്ഞാല് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടെ പിന്നെ കൂട്ടില് കയറുകയുള്ളു പിന്നെ കൂട്ടില് കയറില്ല നമ്മള് പിടിച്ചു കയറ്റണം പക്ഷേ ഇതിനു അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല അപ്പം നമ്മള് ഇതിനെ താലോലിച്ചും വളർത്തിയൊക്കെകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഭയങ്കര സ്നേഹമാണ് ഇപ്പം നമ്മള് മനുഷ്യന്മ്മാരെക്കാട്ടും കൂടുതല് സ്നേഹം മൃഗങ്ങള്ക്കാണ്